ഗ്രാമീൺ ബാങ്ക് അല്ലേ ഗോൾഡ് ലോണിൻ്റെ ഇൻട്രെസ്റ്റ് എങ്ങനെയാണ്

ആ ഒരു നാല് പവൻ

ആ സ്ഥലം ഈ ആധാരം പണയം വെച്ചിട്ടാണെങ്കിൽ എങ്ങനെയാണ് സ്ഥലം പതിനേഴ് സെൻറ്റ്

ആ അപ്പോൾ അതിന് എന്തൊക്കെ രേഖയാണ് വേണ്ടത്

ആ ഫാം തുടങ്ങാനാണ്

ആ മാനന്തവാടിയാണ് ആ വേഗം കിട്ടുവല്ലേ

ഗോൾഡ് വെച്ചിട്ട് ചെയ്യാം

ആണല്ലേ ഒരു രണ്ട് ലക്ഷം രൂപ വേണം ആ എന്നാൽ സ്ഥലത്തിൻ്റെ ആക്കാം

ആ ഓക്കെ ആ പലിശയൊക്കെ എങ്ങനെയാണ്

ആ സംശയമുണ്ടെങ്കിൽ ബാങ്കിലേക്ക് വരാം ആ ആ ശരി